ഞാൻ പിന്നെ ഈ ബട്ടർ ഫ്ലൈയ്യിൻ്റെ സ്റ്റൗ ഓർഡർ ചെയ്തു ചെയ്തത് എനിക്ക് കുഴപ്പമില്ല നല്ല പ്രോഡക്ട് ഒക്കെ തന്നെ കാരണം എനിക്ക് ആ സംഭവം ഇഷ്ടട്ടമൊക്കെ ചെയ്തു ആയി കാരണം നല്ല ഉപയോഗിക്കാനൊക്കെ പറ്റിയതാണ് നല്ല രസമുണ്ട് മൂന്ന് അടുപ്പാണ് ഒക്കെയാണ് പക്ഷേ ഭയങ്കര റേറ്റാണ് ആ ഒരു കാര്യംന്ന് വെച്ചാൽ ഭയങ്കര അത്ര വലിയ റേറ്റിനുള്ള സാധനമല്ല ഉള്ള കാര്യം പറയാണെങ്കിൽ അത്ര റേറ്റ് പാടില്ല കുറച്ച് റേറ്റ് കുറയ്ക്കൊക്കെ ആണെങ്കിൽ ഓക്കേ പക്ഷേ അത്രയ്ക്ക് ഭയങ്കര റേറ്റാണ് അതിന് കുഴപ്പമില്ല